നെയ്ത്തുമായിട്ട് നേടിയെടുക്കുന്ന ഈ കൈത്തറി ഉല്പ്പന്നങ്ങളൊക്കെ ഒത്തിരി ഏതൊരിടത്ത് കുറേ ഇടത്ത് പോയി നിന്ന് കാണണമെന്നും കണ്ടിട്ട് അത് അതുപോലെ ഒക്കെ കണ്ട് പിടിച്ചിട്ടൊന്ന് ചെയ്യണമെന്നും പിന്നെ കുറച്ച് പേരുമായിട്ട് അതൊരു സംരംഭമായിട്ട് തുടങ്ങണമെന്നും ഒക്കെ ലക്ഷ്യങ്ങളുണ്ട് അത് ഒരു അഭിലാഷവും ആണ് നല്ല കൈത്തറി മുണ്ടുകളും നല്ല കൈത്തറി സാരികളൊക്കെ എനിക്ക് സാരിയോട് ഭയങ്കര ഇഷ്ടമാണ് ഇതിന് സാരി നല്ല ഓണം എന്നൊക്കെ ഓണമോ ഒക്കെ വരുമ്പം ആണ് കൂടുതലും കൈത്തറി സാരികളും അതിന്റെ ഒക്കെ ഉല്പ്പന്നങ്ങൾ ഒത്തിരി ബ് വിറ്റഴിയുന്നത് അപ്പം തന്നെ ന് അത് അതൊക്കെ കൂടുതലും എല്ലാവരും നെയ്ത്ത് കമ്പനികളിൽ വന്നാണ് അത് മേടിക്കുന്നത് തന്നെ അപ്പം അത് അത് പോയി കണ്ട് അതിനെ അത് എന്നുവെച്ചാൽ ഈ അതിനെ പറ്റി ഒന്നും അറിയുകയും ചെയ്ത് ചെയ്യണമെന്നും ഒക്കെ വലിയ താല്പ്പര്യമാണ് പിന്നെ ഒരു അതിനെ പറ്റി അത് അതിനെ കുറിച്ച് മനസ്സിലാക്കി അതേക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ ഒരു ഇത് കട ഒക്കെ ഇടണമെന്ന് വലിയ താല്പ്പര്യമുണ്ട് തുണികള് തുണിക സാധാരണ കൂടുതലും സാരികളാണല്ലോ ഇപ്പം ഒത്തിരി ഡിസൈൻ ഒക്കെ വിവരിച്ച് കൈത്തറിയിൽ നല്ല ഇതായിട്ട് വരുന്നത് സാരികളും മുണ്ടുകളുമാണ് കൂടുതലും അത് വിറ്റ് അഴി വിറ്റഴിയുന്നത് അപ്പം അതിനെ അതിനെ ആ അത് ഒത്തിരി നന്നായിട്ട് ഒന്ന് പഠിക്കണമെന്നും ആഗ്രഹം ഉണ്ട് അതിന് ഒരു നല്ല ഇല്ല കുറച്ച് പേരുമായിട്ട് ഒരു സംരംഭം തുടങ്ങാനും വലിയ ഒത്തിരി നല്ല ആഗ്രഹമാണ്